ഞങ്ങളുടെ വീടിന് സമീപമുള്ള ആശുപത്രിയിൽ കാൻസർ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയിൽ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള ചികിൽസയുടെ സൗകര്യം ലഭ്യമാണ് കാരണം ഒരുപാട് കാൻസർ രോഗം ബാധിച്ചവർ മരണപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നേയും ഒരുപാട് ഹൃദ്രോഗങ്ങൾ വരുന്നതുകൊണ്ട് തന്നേയും ഇനിയാർക്കും വരാതിരിക്കുവാൻ ഈ ബാധിച്ചവരെ മരണത്തിലേക്ക് തള്ളി വിടാതെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരുവാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ആശുപത്രികളിൽ ആശുപത്രികളിൽ ഈ കാൻസർ രോഗത്തെപ്പറ്റിയും അതുപോലെ ഹൃദ്രോഗത്തെപ്പറ്റിയും ഒക്കെ തന്നെ ബോധവൽക്കരണം നടത്തുകയും അതുപോലെ തന്നെ അവയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ചികിത്സ ചികിത്സ നേടുകയും ചെയ്യുന്ന സമ്പ്രദായം കണ്ടുവരുന്നുണ്ട് നല്ല മികച്ച രീതിയിലുള്ള ചികിത്സ തന്നെയാണ് നൽകുന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ രോഗം ഭേദമായി ലഭിക്കുന്നതിന് വേണ്ടീട്ടുള്ള ചികിത്സയാണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്